എടീ മായേ നമ്മുടെ കുഞ്ഞാവേടേ പേരും കൂടെ പാസ്പോര്ട്ടിലൊന്ന് അപ്ഡേറ്റ് ചെയ്യണം അപ്പം ഞങ്ങള്ക്ക് അടുത്ത മാസത്തേക്ക് വെളിയിലോട്ട് പോകാനായിട്ടായിരുന്നു ദുബായിക്കെ അന്നേരം അതിനുവേണ്ടിയിട്ട് കൊച്ചിന്റെ പേരും കൂടെ അതിലുള്പ്പെടുത്താനായിട്ട് പേപ്പെഴ് സോക്കോ എന്താ വേണ്ടെന്ന് ഇഞോട്ടൊന്നു പറയിക എന്നിട്ട് അതുടെ നീ ഒന്ന് ചെയ്ത് തരണം എന്തെങ്കിലും എന്റെ സൈനോ മറ്റു കാര്യങ്ങളോ വല്ലോം വേണോങ്കിലേ നീ വൈകിട്ട് ഓഫീസില് നിന്നെറങ്ങുമ്പോത്തേക്കും ഇഞൊട്ടു വന്നിട്ട് അതൊന്ന് കളക്റ്റ് ചെയ്തോണ്ട് പോകണം എന്നിട്ട് ഇത് എത്രയും വേഗം ഈ മാസം മുപ്പതിനോട് അടുത്തെങ്കിലും ഞങ്ങള്ക്ക് കയറി പോണോന്നാ ഉദ്ദേശിക്കുന്നത് അന്നേരത്തേക്ക് അതെല്ലാം ഒന്ന് ശരിയാക്കി പാസ്പോര്ട്ട് റെഡിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നീയും കൂടെ നിന്ന് അതൊന്ന് ചെയ്ത് റെഡിയാക്കി ഞങ്ങള്ക്ക് തരണം കേട്ടോ